ഇപ്പം നമുക്ക് ദിവസം ഒരു ദിവസം മുഴുവൻ വെള്ളം ആവശ്യമുള്ള പിന്നെ വ്യത്യസ്ഥ ആവശ്യമുള്ള വെള്ളത്തിൻ്റെ വ്യത്യസ്ഥ ആവശ്യങ്ങൾ എന്തക്കെയാന്ന് വച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം വെള്ളമെന്നു വച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഡെയിലി ലൈഫില് ഒഴിച്ച് കൂടാൻ പറ്റാത്ത അതായത് നമുക്ക് വേറെ എന്തൊക്കെ പിന്നെ ഒഴിവാക്കാൻ പറ്റുമെന്ന് പറഞ്ഞാലും നമുക്ക് വെള്ളം നമുക്കൊരു ദിവസം ഒരിക്കലും നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ് കാരണം എന്താന്ന് വച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് രാവിലെ ബാത്റൂമിൽ പോകണമെങ്കിലൊക്കെ വെള്ളം വേണം അതായത് നമ്മള് കക്കൂസിൽ പോയിട്ട് പിന്നെ കഴുകണമെങ്കിൽ നമുക്ക് വെള്ളം വേണം അതുപോലെ പിന്നെ അത് നമ്മളിപ്പം ഫ്ലെഷ് ചെയ്ത് വിടണങ്കില് അതില് വെള്ളം വേണം അല്ലങ്കിൽ അത് അങ്ങനെ തന്നെ ഇരിക്കില്ലേ ഫ്ലെഷ് ചെയ്തില്ലങ്കിലും പിന്നെ അത് ഇപ്പം ബക്കറ്റിലെടുത്ത് വെള്ളമൊഴിക്കണമെങ്കിൽ നമുക്ക് വെള്ളം വേണം പിന്നെ പല്ല് തേക്കണമെങ്കിൽ വെള്ളം വേണം പാചകം എന്ത് പാചകം ചെയ്യണമെങ്കിലും നമുക്ക് വെള്ളം വേണം പിന്നതുപോലെ തന്നെ കുടി വെള്ളം അത് അത്യാവശ്യാണ് പിന്നെ നമ്മളിപ്പം കുളി ഡെയിലി കുളിക്കുന്നവരായിരിക്കും കൂടുതല് ആൾക്കാര് അപ്പം കുളിക്കണമെങ്കിൽ നമുക്ക് വെള്ളം അത്യാവശ്യം നല്ല ലാവിഷായിട്ട് കുളിക്കണമെങ്കിൽ അത്യാവശ്യം നല്ല വെള്ളം വേണം പിന്നേന്ന് വച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം ഭക്ഷണമൊക്കെ കഴിച്ച് കൈ കഴുകണമെങ്കിൽ എല്ലാത്തിനും നമുക്ക് വെള്ളം അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ്